ഞാൻ ഈ ഗൂഗിൾ മാപ്പും ഗൂഗിൾ ട്രാൻസ്ലേറ്റും ഒക്കെ ധാരാളം ഉപയോഗിക്കുന്നൊരു വ്യക്തിയാണ് എനിക്കത് വളരെ അത്യാവശ്യം ആണ് ഗൂഗിൾ മാപ്പ് ഒക്കെ ആ അങ്ങനെ എനിക്കതിന് തെറ്റ് വന്നിട്ടില്ല ഇതുവരെ ആയിട്ടും ഗൂഗിൾ മാപ്പിൽ ഞാൻ പോവുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് കറക്റ്റ് ആയിട്ട് പോയി എത്തിയിട്ടുണ്ട് ഗൂഗിൾ മാപ്പ് അങ്ങനെ തെറ്റ് പറയാറുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ എൻ്റെ പരിചയത്തിലുള്ള ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് തെറ്റി പോയിട്ടുണ്ട് അവർ തെ തെറ്റ് വളവുകളും എല്ലാം കയറി പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല എനിക്ക് ഗൂഗിൾ മാപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പം കറക്റ്റ് ആയിട്ട് ഞാൻ എത്താറുണ്ട് പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ ഞാൻ ഒരുപാട് ഉപയോഗിക്കും എനിക്ക് മലയാളം ഭാഷ പറയാൻ മാത്രമേ അറിയൂ ഞാൻ അങ്ങനെ എഴുതാനും വായിക്കാനൊന്നും പഠിച്ചിട്ടില്ല മലയാളം അപ്പോൾ ഞാൻ മലയാളം വായിക്കാനൊക്കെ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒരുപാട് യൂസ് ചെയ്യാറുണ്ട് അത് വെച്ച് എനിക്ക് ഏകദേശം ഒരു കറക്റ്റ് ആയിട്ട് ഉള്ളൊരു ട്രാൻസ്ലേഷൻ ആണ് കിട്ടുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഏകദേശം ഞാൻ ആരുടെ അടുത്തെങ്കിലും ചോദിക്കുമ്പോൾ അവരും പറയുന്നത് അതെ കറക്റ്റ് ആണ് ഇങ്ങനെ തന്നെയാണെന്ന് അപ്പോൾ എനിക്ക് അങ്ങനെ തെറ്റായിട്ട് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല പിന്നെ ഗൂഗിൾ മാപ്പും ഗൂഗിൾ ട്രാൻസ്ലേറ്റുമൊക്കെ തെറ്റ് വരുത്താം കാരണം അതൊക്കെ മെഷീൻസ് ആണ് അവർക്ക് അങ്ങനെ മനുഷ്യന്മാർ പോലെയുള്ളൊരു വിവരമോ അത്രയ്ക്കുള്ളൊരു നോളേജും ഒന്നും ഇല്ല അപ്പം അവർക്കും അതിനും ആ മെഷീനിനും തെറ്റ് വരാം അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിലും ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിൽ തന്നെ അതിൻ്റെ തന്നെ ഹെൽപ്പും നോക്കി ഇരിക്കരുത് കാരണം തെറ്റ് വരാം നമുക്കിപ്പം ഒരു സ്ഥലത്തിൽ പോകുമ്പം വഴി അറിയില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് എടുക്കാം പക്ഷേ അഥവാ ഇപ്പം ആരെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് വഴി തെറ്റി എന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരുടെ അടുത്ത് ചോദ്യം കേൾക്കാം ഒരു പ്രദേശത്തിലെ ആൾക്കാർക്ക് ആ സ്ഥലങ്ങളെപ്പറ്റി നന്നായിട്ട് അറിയായിരിക്കും അപ്പോൾ അവർക്ക് നമ്മളെ കുറച്ചുംകൂടെ ഒന്ന് സഹായിക്കാൻ പറ്റും